മേ ഐ കം ഇൻ സർ ആ ഇപ്പം ഞാൻ അശ്വതി പാലക്കാടിൽ നിന്നാണ് വരുന്നത് ആ അപ്പം എൻ്റെ രണ്ട് മക്കൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആ ആ അശ്വതി ആ അതെ ഞാൻ വർക്ക് ചെയ്യുകയാണ് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ് രണ്ട് കുട്ടികൾ ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒരാൾ എൽ കെ ജിയിൽ അപ്പം അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് ആ പാലക്കാട് ഞങ്ങൾ പറളി മ് ആ അത് പറളി നേതാജി സ്കൂളിൽ ആണ് പഠിച്ച് ഉണ്ടായിരുന്നത്

ആ ഓക്കെ

ഇതിൻ്റെ ഫീ സ്ട്രക്ച്ചർ നമുക്ക് തരുമല്ലോ അല്ലേ സർ ആ ആ ആ ബസ് വേണ്ടി വരും നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ സ്കൂൾ ബസ് എടുക്കേണ്ടി വരും കൊച്ചു കുട്ടികളല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം രണ്ട് പേർക്കും സെപ്പറേറ്റ് സ്കൂൾ ബസ് ആയിരിക്കുമോ സർ ഒരാൾ എൽ കെ ജിയിലും ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ആണല്ലോ അപ്പം ഓ ആ ആ അതെ അതെ അപ്പം എൽ കെ ജിക്കാർക്ക് ഫുഡ് കൊടുത്ത് വിടേണ്ട ആവശ്യം ഇല്ല അല്ലേ സർ ആ ആ ഓക്കെ ഓക്കെ ആ അതെ അതെ

ആ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ തരുമല്ലോ അല്ലേ ഓക്കെ ആ അത് എല്ലാം ഫീസിൽ ഇൻക്ലൂഡഡ് ആണോ സർ ഓക്കെ ഓക്കെ ഓക്കെ ഓ സെക്കൻഡ് സ്റ്റാൻഡേർഡിന് അല്ലേ മ് ആ അതെ അതെ ആ ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ യൂണിഫോം ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ തെരുമല്ലോ അല്ലേ

ഇല്ല മക്കളെ കൊണ്ട് വന്നിട്ടില്ല ആ യെസ് സർ അത് പറയു ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ സർ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു സർ ഓക്കെ സർ ശരി